ഹലോ ആ മാഡം ഇത് ഗൈഡ് അല്ലേ ആ മേഡം ഞാനേ എറണാകുളത്തുനിന്ന് വിളിക്കുന്നതായിരുന്നേ ആ മേഡം എൻറെ ബ്രദറിന് ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നുകഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു നെഞ്ച് വേദന അപ്പോൾ ഏതെങ്കിലും ഇത് വരെ കാണിച്ചില്ല അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇപ്പോൾ വരുന്ന അത്യാവശ്യം നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഏതൊക്കെയാണുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് കോഴിക്കോട് ആണല്ലേ ഓക്കേ നമ്മൾ ബഡ്ജറ്റ് ഒന്നും അങ്ങനെ ആ ഒക്കെ നമ്മൾ ബഡ്ജറ്റ് ഒന്നും നോക്കുന്നില്ല അത്യാവശ്യം നല്ല ഇതിൽ തന്നെ പറ്റുന്നത് പോലെ ചെയ്യാം എന്ന് കരുതിയിട്ടാണേ നമുക്കിങ്ങനെ ആണല്ലേ ആ ഓക്കേ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ നോക്കി തന്നെ ചെയ്യാം എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അവിടത്തെ ഡോക്ടർമാരൊക്കെ അത്യാവശ്യം നല്ല ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും അല്ലേ

ഓക്കേ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മെഷിനറിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ അവിടെ

ആണല്ലേ ആ ഇപ്പോൾ നമ്മൾ നിങ്ങൾ കൂടുതലും റഫർ ചെയ്യുന്നത് ഈ ഹോസ്പിറ്റലുകൾ തന്നെയായിരിക്കും അല്ലേ

ആണല്ലേ ഈ മെഡിക്കൽ കോളേജിലൊക്കെ അത്യാവശ്യം നല്ല ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കുമോ ഓക്കേ എന്നാലും കൂടുതലും നിങ്ങൾ റഫർ ചെയ്യുന്നത് മിംസ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളാണോ ബേബി മെമ്മോറിയൽ അങ്ങനെത്തെ ഹോസ്പിറ്റലുകളാണല്ലേ ആ ഓക്കെ അപ്പോൾ ഈ നെ നമ്മൾ അവിടെയൊക്കെ പോകുന്നതിന് മുൻപ് ബുക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ കിട്ടും അല്ലേ ഓക്കേ എന്നാൽ നമുക്ക് നാളത്തേക്ക് തന്നെ ഒരു അപ്പോയ്ൻമെൻറ് അവിടെ എടുത്താലോ എന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ മാഡം ആ നമ്മൾ ഇന്ന് എപ്പോഴാണ് ടൈം ബുക്ക് ചെയ്ത് കിട്ടുന്നത് എന്ന് നോക്കി അതിനനുസരിച്ച് ഇവിടെനിന്ന് ഇറങ്ങാം

ഓക്കേ ഓക്കേ മേഡം ടോക്കൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എളുപ്പത്തിൽ കിട്ടുന്നത് പോലെ മേഡം ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി ഡീറ്റയിൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ഇല്ല ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഓക്കെ ആണ് മേഡം അത് നോക്കിയിട്ടൊന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ഇതിനെ ഇതിൻറെ ഡീറ്റയിൽസ് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സ്ആപ്പിൽ മെസേജ് ഇട്ടാൽ മതി ഞാനത് ഡീറ്റയിൽസ് ഒക്കെ കറക്റ്റ് അയച്ചുതരാം ഓക്കേ മേഡം ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ട് കേട്ടോ മാഡം ഈ നമ്പറിലേക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി ഞാൻ അത് അയച്ചു തരാം ഓക്കേ മേഡം ശരി എ ആ എല്ലാം അയയ്ക്കാം മേഡം എന്താണ് വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഒന്ന് വാട്ട്സപ്പ് ചെയ്തുകഴിഞ്ഞാൽ ഞാൻ എല്ലാം അയച്ചു തരാം ഓക്കെ മേഡം ആ താങ്ക്യൂ മേഡം